ആ ഹലോ ഇത് സ്വിഗ്ഗീൻ്റെ ഓഫീസല്ലേ ആ ഓക്കേ ഞാൻ ഇപ്പോൾ വിളിച്ചത് എന്തിനാണെന്ന് വച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ റസ്റ്റോറന്റിൽ നിന്ന് ഇങ്ങനെ സ്വിഗ്ഗി വഴി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഓഫീസ് ഇപ്പോൾ കാര്യമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് ഈ ഫുഡിന്റെ എക്സ്പെൻസ് ഒക്കെ റീഫണ്ട് ചെയ്യാൻ ഫണ്ട് ഇങ്ങനെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബില്ല് ആവശ്യമുണ്ട് സൊ അപ്പോൾ നിങ്ങളുടെ ബില്ല് ഒന്ന് എൻ്റെ കൈവശം ഇല്ല അപ്പോൾ അതിനെത്തുടർന്ന് എനിക്കിപ്പോൾ ബില്ല് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ ആപ്പ് വഴി കയറി എടുക്കണോ അതോ നിങ്ങളായിട്ട് തന്നെ എനിക്കത് ചെയ്ത് തരുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തത് ഓക്കേ ഓക്കേ അപ്പോൾ ആപ്പ് വഴി കഴിയുമെന്നാണോ നിങ്ങൾ പറയുന്നത് ഓക്കേ അങ്ങനെയാണെങ്കിൽ ആപ്പ് വഴി എടുക്കാൻ പറ്റുമെങ്കിൽ ഞാനെടുത്തോളാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ എനിക്ക് അതായിരിക്കും ബെറ്ററ് കാരണം എനിക്കിത് ഓഫീസിൽ കൊടുക്കേണ്ടതാണ് അപ്പം നിങ്ങളുടെ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ എങ്കിലും ചെയ്തു തരുമോ അതോ ഞാൻ തന്നെ ആപ്പിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത് ആ ഓക്കേ ഓക്കേ മനസ്സിലായി ആ ഞാൻ ആപ്പിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്തോളാം താങ്ക് യു താങ്ക് യു താങ്ക് യു ഏതായിരുന്നു ആപ്പ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ഞാനതിൽ കയറി ഡൗൺലോഡ് ചെയ്തോളാം ഓക്കേ താങ്ക് യു താങ്ക് യു